ആ ഓക്കെ വർക്കലയിൽ പോകുന്നത് ഇനി ഇപ്പം ഇവിടന്നു നേരെ എന്താ പുനലൂരു പോകുക പുനലുരിൽ നിന്ന് റൈറ്റ് എടുത്ത് അഞ്ചലോട്ട് പോകുക അഞ്ചൽ ചെന്നിട്ട് പിന്നെ എന്താണ് ആയൂരു കയറി അവിടുന്ന് ജടായുപ്പാറ അറിയാമല്ലോ അവിടുന്ന് അങ്ങു പോയാൽ മതി റൈറ്റ് എടുത്ത് അങ്ങു പോയാൽ മതി ടോട്ടൽ നമുക്ക് ഇവിടന്ന് ഒര് പൂനലുരുനിന്ന് ആണെങ്കിൽ നമുക്ക് ഒരു നാൽപ്പതു നാല്പതഞ്ചു കിലോമീറ്റെറോളം വരും ഇവിടുന്ന് പുനലൂർക്ക് ഒരു പതിനാല് കിലോമീറ്റർ സംതിങ്ങ് വരും ആയുരുനിന്ന് ലെഫ്റ്റ് എടുക്കുക ആയുരുനിന്നു ലെഫ്റ്റ് എടുത്ത് നമുക്ക് എളുപ്പവഴി എന്ന് പറയാൻ ചടയമംഗലത്തൂ ചെന്നിട്ട് ചടയമംഗലം ചെന്നിട്ട് അവിടന്ന് റയ്റ്റ് ജടായുപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് അവിടെ ചോദിച്ചാൽ മതി ആരുടെയെങ്കിലും അടുത്ത് അപ്പം എന്നിട്ട് ജടായുപ്പാറയുടെ അവിടുന്ന് റൈറ്റ് എടുത്ത് പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ജടായുപ്പാറ എന്നു പറയുന്നത് ആയൂർ ആയിട്ട് വരും ആ അതെ അതെ അവിടുന്നു റയിറ്റ് എടുത്ത് പോകുക അതാവും ഒന്നുകൂടെ എളുപ്പവഴി മറ്റേ വഴി പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് കിലോമീറ്റർ അധികം വരും അപ്പം നമുക്ക് ഈ വഴി പോകുന്നതാ ഒന്നുകൂടെ എളുപ്പം അപ്പം ഗൂഗിൾ മാപ്പ് ഇടേണ്ട കാരണം ഈ എളുപ്പവഴി അവരു കാണിച്ച് തരത്തില്ല മറ്റേ ദൂരം ഉള്ള വഴിയെ കാണിച്ചു തരത്തൊള്ളൂ അപ്പം ഇതാണ് ഒന്നുകൂടെ എളുപ്പം ആയിട്ടുള്ളത് അപ്പം ഇതാണ് ഒന്നുകൂടെ എളുപ്പം എന്ന് പറയുന്നത് ഈ ചടയമംഗലത്തുനിന്ന് റയിറ്റ് എടുത്തു പോകുന്നത് അപ്പം ആ വഴി പോയാൽ മതി ആ വഴി പോകുമ്പോൾ നമുക്ക് ഒരു പത്ത് കിലൊമിറ്റർ കുറഞ്ഞുകിട്ടും ഏതാണ്ട് ഒരു നാൽപ്പതു കിലോമീറ്റർ സംതിങെ വരത്തുള്ളൂ നമ്മുടെ വർക്കല ക്ലിഫ്ഫ് വരെ അ അവിടെ ഇഷ്ടംപോലെ ഹൊട്ടൽ ഉണ്ട് ഫോറിനേർസ് കാര്യങ്ങളും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യം നീറ്റും ക്ലീനും ആണ് പിന്നെ നമുക്ക് ഒരുപാട് കാണാനും ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ലവണ്ണം ടൈം സ്പെന്ഡ് ചെയ്യാനൊക്കെ അടിപൊളി ആണ് അങ്ങനെ മ്മ് ഓക്കെ എന്നാൽ